എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഓയിൽ ആണ് ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുടി വളരാനും താരൻ പോകാനും പിന്നെ നമ്മുടെ മുടി നല്ല ഷൈൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് കൂടുതലായിട്ടും ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ നമ്മളിപ്പോൾ കുളിക്കുന്നതിനു മുൻപേ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുളിക്കുന്നതിനു മുൻപേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ തേച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താന്നറിയുമോ പത്ത് മിനിറ്റ് നമ്മൾ നമ്മുടെ സ്കാൽപ്പിലും കാര്യ അതായത് നമ്മുടെ മുടിക്കുള്ളിലേക്ക് ഒക്കെ തേച്ചുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ള മുടിക്ക് ഉള്ള് വരാനും ഇപ്പോൾ താരൻ ഉള്ളവരാണെങ്കിൽ താരം പോകാനും ഇപ്പം പേനും കാര്യങ്ങളൊക്കെ ചിലവരുടെ തലയിൽ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഹെയർ ഓയിൽ എന്ന് വേണമെങ്കിൽ പല തരത്തിലുള്ള ഹെയർ ഓയിലും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇന്ദുലേഖയാണ് ഇന്ദുലേഖ കുറച്ച് നല്ലൊരു പ്രൊഡക്ട് ആണ് നമുക്കത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട നമ്മൾ അതിനൊരു കോമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട് ചീപ്പിൻ്റെ അതിൽ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടിയിലേക്ക് സ്കാൽപ്പിലേക്ക് ഒക്കെ വേ ചെയ്യാൻ വേണ്ടി സാധിക്കും